എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതിൽ എൻ്റെ അമ്മ അച്ഛൻ അനിയൻ ചേച്ചി ചേച്ചിയുടെ കുട്ടി അങ്ങനെ എനിക്ക് സന്തോഷം നൽകുന്നത് എൻ്റെ കുടുംബം മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ വീടും എൻ്റെ കുടുംബവും എൻ്റെ റൂം എൻ്റെ റൂമാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ സ്വർഗ്ഗം ഞാൻ എവിടെ പോയാലും എവിടെ പോയി ജീവിച്ചാലും എനിക്കാ സന്തോഷം കിട്ടാറില്ല ഞാൻ വീട്ടിലെത്തി എൻ്റെ റൂമിൽ കയറി എൻ്റെ കട്ടിലിൽ കുറച്ച് നേരം കിടന്നാലേ എനിക്കെൻ്റെ ഞാൻ ജീവിച്ചിരിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അതിനാൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എൻ്റെ വീടും പരിസരവും എൻ്റെ റൂമും എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും ചേച്ചിയും അനിയനും അമ്മയും ഒക്കെ തന്നെയാണ് അതിൽ ഞാൻ ഏറ്റവും സന്തോഷം കണ്ടെത്തുകയും അവരോടൊപ്പം കഴിയാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു